ഇപ്പോഴും ഗ്രാമത്തിൽത്തന്നെ തുടരാൻ ആഗ്രഹിക്കിന്നൊരാളാണ് ഞാൻ കാരണമെന്തെന്നാൽ നഗര ജീവിതം ദുസ്സഹമാണെന്ന് മനസ്സിലാക്കുകയും ചൂടു കൂടിയൊരു ആ സാഹര്യത്തിൽ നഗരത്തിലേക്കുള്ളൊരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഗ്രാമങ്ങളിൽത്തന്നെ പാർക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഗ്രാമങ്ങളിൽത്തന്നെ ജീവിക്കുവാനാണെൻ്റെ ആഗ്രഹവും ഗ്രാമത്തിലെ ബന്ധങ്ങൾ പലതും നഗര ജീവിതത്തിൽ നാഗരിക ജീവിതത്തിൽ നിന്ന് ലഭിക്കണമെന്നില്ല കാരണം നഗര ജീവിതം ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമായൊരു ഒരു ഇതാണ് കാരണം ഒരുപാട് ബന്ധങ്ങൾ നഗര ജീവിതത്തിൽ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ബന്ധങ്ങളിൾ ഇല്ലാണ്ടാവുന്നു മതിൽക്കെട്ടുകൾ വരുന്നു ഇതെല്ലാം നഗര ജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് എന്നാൽ ഗ്രാമ ജീവിതത്തിൽ ഗ്രാത്തിലെ ജീ ഗ്രാമങ്ങളിലെ ജീവിതങ്ങളിൽ അങ്ങനെയില്ല മറ്റുള്ളവർ സംസാരിക്കുവാൻ ആഗ്രഹിക്കിന്നു മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ടൈം പോകുന്നു സന്തോഷങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു എങ്ങനെ അത്രയും മനോഹരമായ ഗ്രാമങ്ങളെ വിട്ട് എങ്ങനെയാണ് നമ്മൾ മറ്റൊരു നഗരത്തിലേക്ക് കുടിയേറ്റം ചെയ്യണത്